ഇപ്പോൾ വൈദ്യുതിയെ പറ്റി പറയുവാണെങ്കിൽ വൈദ്യുതിയുടെ വൈദ്യുതിയുടെ ഏറ്റവും വലിയ ഒരു അപകടമെന്നു പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് ബില്ല് തന്നെയാണ് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വൈദ്യുതിയിൽ വരുന്ന ഏറ്റവും വലിയ ഒരു അപകടമെന്നു പറഞ്ഞാൽ ബില്ല് തന്നെയാണ് പിന്നേ ഇതിനു വരുന്ന വേറൊരു ദോഷം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കുമ്പോൾ ഷോക്കടിക്കുക അത് തന്നെ വേറൊരു പ്രശ്നമാണ് ഷോർട്ട് സർക്യൂട്ട് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ വയറിങ്ങ് ഒക്കെ കത്തി പോവുക അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാക്കുന്നത് പിന്നെ ബില്ല് വന്നു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മുടെ മാനസികാവസ്ഥയൊക്കെ വല്ലാതെ മാറിപ്പോകും കാരണം എന്താ പറയുക നല്ല രീതിക്ക് ഇന്നത്തെ കാര്യവും ഒരിതൊക്കെ വെച്ചു നോക്കുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ കറണ്ട് ബില്ലൊക്കെ അടയ്ക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ദിവസേന എന്താ പറയുക ബില്ലും കാര്യങ്ങളൊക്കെ വല്ലാണ്ട് പ്രതി ഇതാവാണ് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ബില്ലൊക്കെ അടക്കണമെങ്കിൽ നല്ലൊരു ബുദ്ധിമുട്ടു തന്നെയാണു വരുന്നത് പിന്നെ ഇപ്പോൾ നോർമലി കറണ്ട് കിട്ടണമെങ്കിൽ അതിനും ഒരുപാട് പ്രൊസീജിയേർസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ എന്താ പറയുക കറണ്ട് ഇപ്പോൾ എന്താ പറയുക ഇപ്പോൾ ഭക്ഷണം പോലെ തന്നെയാണ് ഇപ്പോൾ വൈദ്യുതി ഇല്ലാണ്ടൊന്നും ആർക്കും ജീവിക്കാൻ പറ്റില്ലാത്തൊരു ഇതാണ് ഇപ്പോൾ സമൂഹത്തിൽ നമ്മൾ കണ്ടു വന്നുകൊണ്ടിരിക്കുന്നത്